ഗുഡ് മോർണിംഗ്

ട്രഡിഷണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോട്ടലിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചട്ടിച്ചോറ് മസാല ദോശ ആമ്പ്ലേറ്റ് ദോശ പിന്നെ ചിക്കൻ കറി ട്രഡീഷണലായിട്ട് പറയാൻ ഇപ്പം അവൈലബിളായിട്ടുള്ളത് ആ ആ ഓ പിസാ ഇവിടെയുണ്ട് ആ നിങ്ങൾ ഏകദേശം എത്ര ടൈമാവുമ്പോഴേക്കും എത്തും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾ വരുമ്പോഴേക്ക് സെർവ്വ് ചെയ്ത് വെക്കാം ആ അതെ വളരെ നല്ല കാര്യമാണ് കാരണം ഞങ്ങൾക്ക് എപ്പോഴാണ് ബി സി ആ ഒരു ടൈമിന് നിങ്ങൾക്ക് റെഡിക്ക് സെർവ്വ് ചെയ്യാമല്ലോ ആ അതെ ഇല്ല ഇല്ല ഞാൻ ഈ ഒരു നമ്പറിലേക്കൊരു നമ്പറിട്ടു തരാം അതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മെസ്സേജ് അയച്ചിട്ടോ ഇപ്പോൾ നിങ്ങൾ വരുമ്പോഴേക്ക് അത് റെഡിയായിട്ട് ഉണ്ടാവും ഓ നോൺവെജ് ഐറ്റംസ് ഓ ഉണ്ടാവും ചിക്കൻ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യാം ഞാൻ ഇട്ടുതരാം ഫുൾ

ആ വെജ് നോൺവെജ് ആ ഓക്കെ പിന്നെ വെജ് നോൺവെജ് അല്ല ചൈനീസും ഒക്കെയുണ്ട് കേട്ടോ താമസിക്കാനുണ്ട് പക്ഷെ ഞങ്ങളുടെ ഹോട്ടലിന്റെ അടുത്തായിട്ട് വരില്ല ഒരു ഫൈവ് കിലോമീറ്ററ് ഉണ്ടാവും അത്രയും ഡിസ്റ്റൻസുണ്ടാവും അല്ല ഇത് റെസ്റ്റോറെന്റ് മാത്രമായിട്ടാണ് പക്ഷെ മറ്റേത് പറയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും നിങ്ങൾ ഇപ്പോൾ തലേന്ന് ഒരു ഫൈവ് പി എം ഈവെനിംഗ് ആണ് കയറിയത് വിചാരിക്കുക പിറ്റേന്ന് ഫൈവ് പി എം ഈവെനിംഗ് വരെയുള്ള എല്ലാ ഫുഡ് ഐറ്റംസും അതായത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒക്കെ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും ഈവനിംഗ് ടീ അടക്കം ഓക്കെ ഓക്കെ താങ്ക് യൂ